ഹലോ നേരത്തേ ഞാന് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ആ അതെ അതെ അപ്പോൾ ഡ്രൈവറ് ഇതുവരെയിട്ട് എത്തിയിട്ടില്ല അത് എന്ത് കൊണ്ടാന്ന് അറിയില്ല ഇതുവരെ എത്തീട്ടില്ല അപ്പം എനിക്ക് അത് റദ്ദാക്കാൻ വേണ്ടീട്ടായിരുന്നു കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് ഞാന് അർജന്റായിട്ട് ഒരു സ്ഥലത്ത് വരെ പോകണമായിരുന്നു അപ്പോൾ ഇതുവരെ എത്താതത് കൊണ്ട് എനിക്ക് ഇനിയങ്ങോട്ട് ക്യാൻസല് ചെയ്യാനേ പറ്റുകയുള്ളു എൻ്റെ ആ ഒരു മീറ്റിങ് അതെ അതെ അപ്പോൾ എനിക്ക് എന്തായാലും ഇനി ക്യാബ് ഒന്നും വേണ്ട കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് ഞാൻ പോയിട്ട് ഒരു കാര്യമില്ല കറക്റ്റ് ടൈമിന് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവര് എത്തീട്ടില്ലല്ലോ പിന്നെ ഞാനെന്തിനാ പോയിട്ടിപ്പ കാര്യോള്ളു അതെ അതെ അല്ല അപ്പം ക്യാബിനി വേണ്ട ഡ്രൈവറെ ഒന്ന് വിളിച്ചു പറഞ്ഞാല് നല്ലതായിരുന്നു ഞാൻ ഡ്രൈവറെ വിളിച്ചു പക്ഷെ എടുക്കുന്നില്ല അതാ നിങ്ങടെ ഏജൻസിലേക്ക് വിളിച്ചതേ അല്ല കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണേ ഇനി പോയിട്ട് കാര്യയില്ല അത് കൊണ്ടാ ആ റദ്ദാക്കിക്കോ ഓക്കെ ഓക്കെ